മലയാള ഭാഷ നമ്മുടെ എന്നാ സംസ്ഥാനത്തില് ബാക്കിയെല്ലാ ഭാഷയില് എന്ന് പറഞ്ഞാല് മലയാള ഭാഷയ്ക്ക് വ്യത്യാസമെന്ന് വെച്ചാല് ബാക്കി ആർക്കും അങ്ങനെ വേ വേറെ ഭാഷ പഠിച്ചവർക്കങ്ങനെ പെട്ടെന്ന് മലയാളം കത്തണന്നില്ല ഭയങ്കര പാടാണ് കാരണം എന്ന് വെച്ചാല് ഇപ്പം ചൈന പഠിച്ചവർക്കായാൽ പോലും അങ്ങനെ വിദേശത്തകത്തൊള്ള അവിടുന്ന് വരുന്നവർക്കായാൽ പോലും ഭയങ്കര പാടാണെന്നാണ് അവര് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ മലയാള ഭാഷ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് ഏറ്റവും പാടുള്ള ലാംഗ്വേജ് ൻ്റെ കൂടത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു സ ഭാഷയാണ് ബാക്കി പിന്നെ ഈ ഹിന്ദി പഠിച്ചവർക്കായാലും ഭയങ്കര പാടാണ് മലയാളത്തിൻ്റെ പല